ആദ്യം തന്നെ ഒരു മാങ്കോ ജ്യൂസ്സ് വേണം ആ മാങ്കോ ജ്യൂസില് കുറച്ച് മാത്രം മധുരമിടുക അതുപോലെ അതിന് ശേഷം വേണ്ടത് ബിരിയാണി ബിരിയാണിയില് ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി അതിന് ശേഷം അതുപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് സൈഡ് ഡിഷസ്സ് വേണം അതിന് ചിക്കൻ ആണ് വേണ്ടത് അതിലേക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതില് നല്ല നല്ല കുറച്ച് മാത്രം എരിവ് മുളക് ആഡ് ചെയ്താൽ മതി തീരെ എരിവില്ലാത്ത ചിക്കനുംകൂടെ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായി വേണം